വിദ്യാർത്ഥികൾ ഒരു പ്ലസ് ടു കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കുന്നതിനോടാണ് എനിക്ക് താൽപര്യം വിദ്യാഭ്യാസത്തിനായി വേറെ എവിടെയെങ്കിലും നല്ല അവർക്ക് നല്ല രീതിയിലുള്ള ഹോസ്റ്റലുകളിൽ പോയി നിന്ന് നല്ല സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് പോയി വേറെ എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു അവർ ഒത്തിരി താമസിക്കാത്ത രീതിയിൽ ഡിഗ്രി പഠിച്ചു പി ജി പഠിച്ചു പോകുന്നതിലും നമ്മൾ അവരെ നേഴ്സിംഗ് അങ്ങനെയുള്ളത് എഞ്ചിനീയറിംഗ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പഠിച്ചു അവർ ഒരു ജോലി ലഭിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആ ജോലി കിട്ടാൻ സാധ്യതയുള്ള മേഖലകളാണ് അല്ലാതെ തുടർന്നു തുടർന്നു പഠിച്ചു കൊണ്ട് ഇന്നത്തെ കാലത്ത് തുടർന്ന് ഒത്തിരി പഠിച്ചിട്ട് ബീഎഡും ഒക്കെ എടുത്തിട്ടും പല കുട്ടികൾക്കും ജോലി ഇല്ലാതെ ഒത്തിരി വിഷമിക്കുന്ന ഒരു അവസ്ഥയാണ് നഴ്സിംഗ് ഫീൽഡിൽ വന്നാൽ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്ലസ് ടു കഴിഞ്ഞു നല്ല മാർക്കോടു കൂടി പാസാവുന്ന കുട്ടികൾക്ക് ഗവൺമെൻ്റിൻ്റെ ടെസ്റ്റ് എഴുതി തന്നെ അവർക്ക് നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടുന്നതാണ് നല്ല സുരക്ഷിതമായിട്ടുള്ള കോളേജുകൾ തിരഞ്ഞെടുക്കണം അവരെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുന്നതാണ് നല്ലത് ഹോസ്റ്റലിൽ നിന്ന് അവർക്ക് പഠിച്ചു മൂന്ന് നാല് വർഷം കഴിയുമ്പോൾ അവർ ജോലിയിൽ പ്രവേശിക്കുകയും നല്ല രീതിയിൽ കേരളത്തിൽ തന്നെ നിന്നു നല്ല രീതിയിൽ ശമ്പളം മേടിച്ചു ജോലി ചെയ്തു ജീവിക്കാനും അവർക്ക് കഴിയും അതിനകത്തെ അവർ തെരഞ്ഞെടുക്കുന്ന മേഖലകൾ കൂടുതലും ടെക്നിക്കൽ എന്തെങ്കിലും മേഖലകൾ ആയിരിക്കും എന്തായാലും പ്ലസ്ടുവിന് ശേഷം പോകുന്നതാണ് നല്ലത് അത്രയേ അത് കഴിഞ്ഞു പിന്നെ ഈ വേറെ എന്തെങ്കിലും കോഴ്സ് പഠിച്ചു കൊണ്ട് ഡിഗ്രി തന്നെ ചെയ്യാനും സാധിക്കും ചില കുട്ടികൾക്ക് അങ്ങനെ സാധിക്കുന്നുണ്ട് അത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള കഴിവും ഒക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തെരഞ്ഞെടുക്കാം പിന്നെ എൻ്റെ ഒരു അഭിപ്രായം ഡിഗ്രിക്ക് പോകാതെ പ്ലസ് ടു കഴിഞ്ഞു എന്തെങ്കിലും കോഴ്സ് തെരഞ്ഞെടുത്തു ജോലി സാധ്യതയുള്ള കോഴ്സ് തെരഞ്ഞെടുത്തു ഒന്നോ രണ്ടോ മൂന്നോ നാലോ വർഷം പഠിച്ചാലും അത് കഴിയുമ്പോൾ അവർക്ക് ഒരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും അതിന് അവർക്ക് കുടുംബത്തിനും അവർക്കും ഒരു വരുമാനമാകും കുട്ടികൾക്ക് ഒത്തിരി പ്രായമാകുന്നതിന് ന് മുമ്പ് ജോലി ചെയ്യാനും അവരുടെ വിവാഹം പ്രായം ആവുമ്പോൾ അവരെ വിവാഹം കഴിച്ചു അയക്കാനും ഒക്കെ നമുക്ക് സാധിക്കും അവർക്ക് നല്ല ജോലി ഉണ്ടെങ്കിൽ അങ്ങനെ മിക്ക കുട്ടികളും അവർക്ക് തന്നെ അറിയാം എന്ത് കോഴ്സ് ആണ് പഠിക്കേണ്ടതെന്ന് പ്രത്യേകമായി ഇപ്പോഴത്തെ ഇന്നത്തെ കുട്ടികൾക്ക് ഇന്നത്തെ തലമുറയ്ക്ക് പഠിക്കേണ്ട കോഴ്സുകൾ തന്നെ പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ അവർ ഏകദേശം പറയും അവർക്ക് അറിയാം എന്ത് ഏത് ഫീൽഡിൽ പോകണമെന്ന് ജോലി ചെയ്തു ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളാണ് എല്ലാവരും തന്നെ ഇന്ന് അവർക്ക് നല്ല ഫീൽഡിൽ പോയി നല്ല ജോലി മിക്ക കുട്ടികൾക്കും എല്ലാവരും ഇന്ന് കേരളത്തിന് പുറത്തു പോകുന്നുണ്ട് വളരെ വിദേശ രാജ്യങ്ങളിൽ ഇന്ന് കുടുംബങ്ങളിൽ നിന്നും കാരണവൻമാർ തന്നെ ഉള്ളു മക്കൾ എല്ലാവരും വിദേശത്താണ് കാരണം ഇവിടെ ഒരു ജോലി ഇല്ലാത്തത് ആണ് മെയിൻ കാരണം അത് ഇവിടെ കിട്ടാൻ എന്തെങ്കിലും കോഴ്സ് എടുത്തു പഠിച്ചു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി നല്ല കോഴ്സുകൾ പഠിക്കുകയാണെങ്കിൽ ഇവിടെ ആണെങ്കിലും ജോലി കിട്ടും എല്ലാവരും വിദേശത്ത് പോകണമെന്നില്ല പിന്നെ ഇവിടെ തന്നെ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ തന്നെ പഠിക്കുന്നതിനോടാണ് നല്ലത് കേരളത്തിൽ പഠിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ ജോലി കിട്ടുകയും പിന്നെ തുടർന്നവർക്ക് അത് ഇവിടെ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു പിന്നെ പാരൻസിനെ ഒക്കെ കാണാനും വിദേശത്തു പോയാൽ അവർ സാമ്പത്തികമായിട്ട് നേട്ടം കൈവരിക്കാം പക്ഷെ വീടുമായിട്ട് ഒരുപാട് ദൂരം അങ്ങനെ വീട്ടിൽ ആൾക്കാരില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും അതൊക്കെ വച്ചു നോക്കുമ്പോൾ കോഴ്സ് തെരഞ്ഞെടുക്കുന്നത് കേരളത്തിൽ തന്നെ തെരഞ്ഞെടുക്കണം ഏതെങ്കിലും നല്ല ഉത്തരവാദിത്തമുള്ള ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതിനോടാണ് താൽപര്യം